സാങ്കേതിക വിദ്യയുടെ കടന്നുവരവോടെ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് യാതൊരു സംശയവും ഉള്ള കാര്യമല്ല പണ്ടത്തെ നമ്മൾ കൃഷിയിടങ്ങളിൽ പോലും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാൻ തുടങ്ങീലോ അപ്പോൾ നമ്മൾ നേരത്തേയൊക്കെന്ന് പറഞ്ഞാൽ നെല്ല് കൊയ്യാൻ എത്രയോ പേർ പാടുപ്പെട്ടാണ് നെല്ല് കൊയ്തിരുന്നത് ഇപ്പം അതിനുപോലും മെഷീൻസായി അതെല്ലാം സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ വളർച്ച കൊണ്ട് നമുക്കുണ്ടായ പ്രയോജനങ്ങളാണ് എന്നാൽ ഈ കാലത്ത് അതിൽ നിന്നൊക്കെ ഒത്തിരി മുൻപിലോട്ട് പോയി ഇപ്പം കുട്ടികൾ പഠിക്കാൻ ഇഷ്ട്ടപ്പെടുന്ന സാങ്കേതിക വിദ്യാന്ന് പറഞ്ഞാൽ ഏ ഐ അല്ലെങ്കിൽ എന്നു പറഞ്ഞാൽ എന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റെലിജൻസ് അല്ലെങ്കിൽ റോബോട്ടിക്സ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ ഇലക്ട്രോണിക്സൊക്കെ ആയിരുന്നു പിന്നെ ഒരു പരിധിവരെ ആദ്യമെയൊക്കെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നതല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനം ഒക്കെയായിരുന്നു ഇപ്പം അതൊക്കെ മാറി ഇത്രോം ഇത്രേം കാര്യങ്ങളിലേക്ക് മാറിയിരിക്കാണ് കൂടുതലും പ്രോഗ്രാമിങ് ലെവെലിലേക്ക് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ പോകുന്നുണ്ട് കാരണം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റെലിജൻസിനൊക്കെ ആണെപ്പോലും പ്രോഗ്രാമ്മിങ്ങാണല്ലോ കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ പ്രോഗ്രാമ്മിൽ കൂടെയാണ് ഇവൺ നമ്മുടെ ഫോൺ പോലും വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഫോണിൽത്തെ പ്രോഗ്രാമ്മിൽകൂടെ അല്ലേ അപ്പോൾ അതിനാണ് ഇപ്പം പ്രോഗ്രാമ്മിങ്ങിലേക്കാണ് എനിക്ക് തോന്നുന്നത് ഐ ടി ഫീൽഡിലേക്കാണ് കൂടുതൽ ആൾക്കാരും പോവുന്നത് പ്രോഗ്രാമ്മിംഗ് ലാംഗ്വേജ്ജുകൾ സ്വായക്തമാക്കുക അതിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു രീതി